ആദ്യം ഇഷ്ടപ്പെടാതെ വായിച്ച പുസ്തകം നമ്മളെ ആരാച്ചാരെന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയായിരുന്നു ഞാനത് മീര എന്ന് പറയുന്നൊരു കഥാ കൃത്തിന്റെയാണ് ആ നോവല് ആദ്യമൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു ഫെമിനിസ്റ്റ് ചിന്താഗതി അതിനോട് വളരെ കൂടുതലുള്ളത് പോലെനിക്ക് തോന്നി അങ്ങനെ ഞാനത് വേണ്ട എന്നുള്ളൊരു ധാരണയിൽ കുറച്ച് ദിവസമത് തള്ളി മാറ്റിയതാണ് പിന്നെയും ജെസ്റ്റ് ഒരു ഇത് തോന്നിയങ്ങ് വായിച്ച് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു ആ വായനയുടെ ആ പുസ്തകത്തോട് ഒരു നല്ല ആ പുസ്തകമാണ് മീര നന്നായിട്ടത് പ്രെസെന്റ ചെയ്യുന്നു കൂടുതൽ ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ വരുമ്പം നമുക്ക് ഒത്തിരി പ്രയാസമൊക്കെ തോന്നും ഇങ്ങനെ വായിക്കുമ്പോൾ ആ വായനേടൊരു സുഖം അങ്ങ് മാറി പോവുന്നത് പോലെ ഇതാവും എന്നാലും കുറച്ച് കഴിയുമ്പോൾ ആ നോവൽന്റെ ഒരു പുരോഗമനമൊക്കെ കാണുമ്പോൾ ഒത്തിരി അധികം സന്തോഷം തോന്നി ആ പിന്നതങ്ങ് വായിച്ച് തീർക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണയാണുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആൽക്കെമിസ്റ്റെന്ന് പറയുന്ന നോവലും നമ്മുടെ പൗലോ കൊയ്ലോടെ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഫിഫ്ത്ത് മൗണ്ടനൊക്കെ അങ്ങനെ വലിയ ഇതൊന്നും തോന്നീട്ടില്ല ലെവൻ മിനിറ്റ്സൊക്കെ കരുത്തുറ്റ അങ്ങനെ വായിക്കാതെ മാറ്റി വച്ച പുസ്തകങ്ങളൊക്കെയാണ് ആൽക്കെമിസ്റ്റാദ്യമേ ആ ഒത്തിരി അഭിപ്രായങ്ങൾ വന്നായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആൽക്കെമിസ്റ്റെന്ന പുസ്തകം അത് നന്നായിട്ട് വായിക്കാനും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഞാനൊന്ന് വായിക്കാനൊക്കെ കാരണവായിട്ടുണ്ട് ആ പുസ്തകം ഒത്തിരി അധികം സ്വാധീനിച്ചൊരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റെന്ന് പറയുന്നത് സഞ്ചാരിയുടെ ആ യാത്രകളും നിധി കണ്ടെത്തുന്നതും ആടുകളോട് കൂടെയുള്ള യാത്രയും അതെല്ലാം ഒത്തിരി അധികം ഇൻട്രസ്റ്റിങ്ങായിട്ട് തോന്നിയായിരുന്നു